ഓരോ പച്ചക്കറികളും ഓരോ കൃഷിയും ഓരോ അതിനൊക്കെ ഓരോ സമയമുണ്ട് അത് നമ്മൾ ഓണം ഓണക്കാലത്തിന് തൊട്ട് മുന്നെയായിട്ട് ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടീട്ട് നടുന്ന കുറേ കൃഷികളുണ്ട് വെള്ളരി വെള്ളരി ചീര പയറ് അതൊക്കെ നമ്മൾ ഈ കേരളത്തിൽ ഓണക്കാലം ആകുന്ന സമയാവുമ്പോഴത്തേനും വിളവെടുക്കാൻ വേണ്ടീട്ട് അതിന് തൊട്ട് മുന്നെ കുറച്ച് മുന്നെ മാസങ്ങളിലാണ് നടുന്നത് യോ കപ്പയെല്ലാം നടുന്നതിന് ഓരോരോ സമയമുണ്ട് അത് മഴ തുടങ്ങുന്ന സമയത്ത് മഴ തുട മഴ തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ ആയിട്ടാണ് കപ്പയൊക്കെ നടുക അത് കുറച്ച് ആ ഒരു മഴ സീസണൊക്കെ കഴിയുന്ന സമയത്താണ് കപ്പ പാകമായി വിളവെടുക്കുന്നത് അങ്ങനെ ഓരോന്നിനും ഓരോ പണ്ട് മുതലേ നമ്മൾ പിൻതുടർന്ന് വന്നിട്ടിള്ള ആ രീതി അനുസരിച്ചിട്ടാണ് ഓരോന്ന് ഓരോന്ന് എപ്പോഴാ എങ്ങനെയാ നടേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഓരോ പച്ചക്കറിയും ഓരോ കൃഷിയും ചെയ്യാൻ ഓരോരോ സമയമുണ്ട് വാഴയൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാം അത്പോലെ നെൽ കൃഷി നെൽ കൃഷിയൊക്കെ ചെയ്യുന്നതിന് ഓരോരോ സമയമുണ്ട് അതിന് അതിൻ്റെതായ രീതിയിൽ തന്നെ എല്ലാ സമയം ക്രമങ്ങളും എല്ലാം നോക്കി അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്